എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കഥയായും എത്ര പാടിയാലും തീരാത്ത കവിതയായും അമ്മ മാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു യോഹന്നാൻ ലോകത്തോട് ലോഹന യോഹന്നാൻ ലോകത്തോട് പറഞ്ഞാണ് അമ്മയെ ഈശോ ഈശോ യോഹന്നാന് അമ്മയെ നൽകുന്നത് ഇതാ നിൻ്റെ അമ്മ എന്നുപറഞ്ഞ് മാതാവിനെ ഈശോ ലോകത്തിനെ യോഹന്നാൻ്റെ കയ്യിൽ ഏല്പിക്കുമ്പോള് അമ്മയെ ലോകത്തിൻ്റെ കൈകളിലാണ് ഏൽപ്പിക്കുന്നത് എന്നാല് ഈ പെന്തകോസ്തുകാര് പ്രോട്ടോസ്റ്റെന്റുകാര് പിന്നെ ഇന്നലെ കുരുത്ത ഇന്നലെ കുരുത്ത കുരുത്ത തകരകൾ പോലുള്ള സഭകള് അവരൊക്കെ ആണെങ്കില് ദൈവ വചനത്തെ കുറിച്ച് പഠിക്കാതെയും ഒന്ന് അറിയാതെയുമൊക്കെ വല്ലാണ്ട് അമ്മ മാതാവിനെ ഇങ്ങനെ തെരുവോരങ്ങളിലൊക്കെ വെറുതെ ഇങ്ങനെ മോശ മോശമായിട്ട് സംസാരിക്കാറുണ്ട് തീർച്ചയായിട്ടും അതെന്നിൽ നോവുളവാക്കിട്ടുണ്ട്

ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രധാന സംഭവങ്ങളിലെല്ലാം മാതാവ് കൂടെ ഉണ്ടായിരുന്ന എന്ന് ബൈബിള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബൈബിള് വ്യക്തമായിട്ടും പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ്റെ അമ്മയായ മറിയവും അപ്പോളവിടെ ഉണ്ടായിരുന്നു ദൈവ വചനം വെറുതെ ഒന്നും ഒരിടത്തും കുറിച്ച് വയ്ക്കുക അല്ലല്ലോ ചെയ്യുന്നത് പരിശുദ്ധാത്മ നിവേശിതമാണ് ആണ് ദൈവ ബൈബിൾ എന്നാണ് പഠിക്കുന്നത് അപ്പോള് പരിശുദ്ധാത്മാവ് ഒരു പ കാര്യം പറയുമ്പോള് അത് വെറുതെ പറഞ്ഞു വയ്ക്കുന്നതാണെന്നൊന്നും നമുക്കാണെങ്കില് അങ്ങനെ ഒരു വിശ്വാസിക്കൊരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റുകയില്ലല്ലോ അപ്പോഴാണെങ്കില് ലോകത്തിന് കുറേങ്കൂടെ പരിജ്ഞാനമുണ്ടാകണം മാ നമ്മുടേതായിട്ടുള്ള ചിന്താഗതികൾ വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുപോകാതെ കുറേങ്കൂടെ അറിവിലും കുറേങ്കൂടെ പഠനത്തിലും ഒക്കെ സംസാരിച്ചുതുടങ്ങണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എഴുതിയ കവിതയാണ് മാതൃഹൃദയത്തിലൊരു വാള് അപ്പോള് ആ കവിതയിലാണെങ്കില് അമ്മ മാതാവിൻ്റെ സാനിധ്യം കുരിശിൻ്റെ ചുവട്ടിൽ അതോടെ നമ്മൾ തന്നെ സഹി ല് പരിശുദ്ധാത്മാവ് അണയുന്ന നേരത്ത് അവിടെ അമ്മ മാതാവിൻ്റെ മറിയത്തിൻ്റെ സാനിധ്യം ഉണ്ടായിരുന്നു അപ്പോള് എൻ്റെ കാഴ്ചപ്പാടില് പരിശുദ്ധാത്മാവ് മറിയമുള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട് അന്ന് ഞാന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങള് അതോടൊപ്പം തന്നെ എൻ്റെ ചിന്തകള് അങ്ങനെ ഒക്കെയാണ് അതുകൊണ്ടു തന്നെ അമ്മ മാതാവിനെ കുറിച്ചുള്ള കവിത ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നു കരയുന്ന കണ്ണിൻ്റെ എരി കാണണം പിടയുന്ന നെഞ്ചിൻ്റെ തുടി കേൾക്കണം അപരൻ്റെ അകതാരിൽ തിരിയാകണം അകലാതെ അമ്മതൻ മകനാകണം അങ്ങനെയാണ് ആ കവിത എഴുതി അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പഴ് ഒരു അമ്മയെ സ്നേഹിക്കുന്ന ഒരാൾക്കുമാത്രം അങ്ങനെ ലോകം ലോകത്തില് അങ്ങനെ ആയിത്തീരാനായിട്ട് കഴിയുകയുള്ളു അതുകൊണ്ടുതന്നെ എഴുതിയവയിലൊക്കെ ഏറ്റവും സ്നേഹിക്കുന്ന കവിതകളിലൊന്നാണ് പിന്നെ എൻ്റെ അദ്ധ്യാപിക ആയിരുന്ന മൃദുജ ടീച്ചറിനെ കുറിച്ച് എഴുതിയ കവിത ടീച്ചറിനെ കുറിച്ച് കവിത എഴുതുമ്പോള് ആ കവിതയിലെ വരികള് ഇങ്ങനെ കടന്നുപോകുന്നുണ്ട് മറവിതൻ മേഘം മറയ്ക്കുന്നയക്ഷരം മറനീക്കി അറിവിൻ്റെ പൊരുളായി നിന്നിടാൻ നനവാർന്ന മണലിലും നനവറ്റ കനവിലും ചെറുവിരൽകൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കവേ വര തെറ്റി വഴിപിഴച്ചെങ്ങുമേ പോകാതെ അരി വറ്റു മണമറ്റൊരെൻ വിരൽ ചേർത്തുകൊണ്ട് അരി വറ്റ് മണമറ്റൊരെൻ വിരൽ ചേർത്തുകൊണ്ട് ഒരു പക്ഷെ ലോക സാഹിത്യത്തിലൊന്നും ഒരു മനുഷ്യനും ദാരിദ്ര്യം കുറിക്കാൻ വേണ്ടിയിട്ട് അരി വറ്റ് മണമറ്റൊരു അരി വറ്റിൻ്റെ മണമില്ലാതായ കൈകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഓരോയ് ഓരണ ഓരോന്ന് എഴുതി കഴിയുമ്പോഴും പഴയതിനോടുള്ള സ്നേഹം കൂടുകയും അതോടൊപ്പം തന്നെ പുതിയതിനെ ഒരുപാട് സ്നേഹിച്ച് തുടങ്ങുകയുമാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനമായിട്ട് ഒരു കാവ്യം കവിത എന്നതിനേക്കാളുപരിയായിട്ട് ഒരു കാവ്യം കുറിക്കണം ഒരു കാവ്യമെഴുതണമെന്ന ആഗ്രഹത്തോടെ നെയ്യാറിൻ്റെ പുറകിലൂടെ ഞാനിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നെയ്യാറിനെ കുറിച്ചുള്ള പതിനൊന്ന് കവിതകൾ നെയ്യാര് തൊടുന്ന കവിതകൾ പതിനൊന്ന് കവിതകൾ എൻ്റെ നാട്ടിലൂടെയാണ് നെയ്യാർ ഒഴു നെയ്യാർ ജനിക്കുന്ന എൻ്റെ നാട്ടിലാണ് അഗസ്ത്യകൂടത്തിലാണ് അപ്പോള് അങ്ങനെ പതിനൊന്ന് കവിതകളെഴുതി വച്ചിട്ടുണ്ട് അത് ഈയിടയ്ക്ക് വേറെ ആളിൻ്റെ ഒന്ന് വാക്കുകളിലൂടെ ചൊല്ലി കേൾക്കാനൊക്കെ ഇടയായിത്തീർന്ന് അങ്ങനെ പിറക്കുന്ന ഓരോ കുഞ്ഞുമൊരമ്മയ്ക്കെത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ പിറക്കുന്ന ഓരോ കവിതയും എനിക്ക് ഒരുപാട് ഞാനൊരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്